ഞാൻ ഒരുപാട് യോഗാക്ലാസ്സുകളിൽ കൂടിയിട്ടുണ്ട് കൂടുതലായിട്ടും എനിക്ക് തടി കുറയ്ക്കണമെന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു യോഗ ചെയ്താൽ തടി കുറയുമെന്ന് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ യോഗ ക്ലാസ്സിൽ ചെന്ന് ചേർന്നത് എന്നാൽ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങ് പോകാൻ പറ്റാത്തതു കൊണ്ട്ഒരു ഒരാഴ്ച്ച പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പോയിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോൾ യൂട്യുബിലും അത്പോലെ ടി വിയിലുമൊക്കെ ഓരോ പരിശീലന ക്ലാസുകൾ കണ്ടിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു പ്രാക്റ്റീസ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ രണ്ടിന്റെയും മാറ്റം എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടി വിയിൽ അതൊക്കെ നോക്കി കാണുമ്പോൾ നമുക്ക് ഡെയ്ലി ചെയ്യാനൊരു മടി വരും ആ നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരും എന്നാൽ ക്ലാസ്സുകളിൽ പോയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ രീതിയിൽ യോഗ ചെയ്ത് ഇപ്പോൾ ടീച്ചർ നേരിട്ട് തന്നെ പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ സംശയം എന്തെങ്കിലുമുണ്ടെങ്കിൽ ചോദിക്കാനും അത്പോലെ അവർ കാണിക്കുന്ന തന്നെ നല്ല രീതിയിൽ ചെയ്ത് യോഗ ചെയ്യാനുമൊക്കെ നമുക്ക് ഒരു പ്രചോദനമായിരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് വരും അപ്പോൾ വീട്ടിൽ നിന്ന് പരിശീലിക്കുമ്പോൾ ചെറിയൊരു മടി ഉണ്ടാകും അപ്പോൾ അതൊക്കെയാണ് അതിന്റെ മാറ്റങ്ങൾ